ഹലോ ലിജയല്ലേ അതെ ഞാനൊരു കല്ല്യാണം ഞാൻ ഷെറിനാണേ ഞാനൊരു കല്ല്യാണ ആൽബം ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു റെഡിയായോ ഡേയ് രണ്ട് മാസം പെട്ടെന്ന് ചെയ്ത് തരാമെന്നും പറഞ്ഞല്ലേഡേ മേടിച്ചത് ഇപ്പോൾ ഇതിത്രയും ആ ഒരു ഒന്നൊന്നര രണ്ട് മാസമടുപ്പിച്ചായല്ലോ നിങ്ങൾ പെട്ടെന്ന് തരാന്നും പറഞ്ഞല്ലേ ചെയ്തത് എനിക്കാണെങ്കിൽ ദുബായ്ക്ക് പോവണമായിരുന്നു ഇത് മേടിച്ചിട്ട് വേണം എൻ്റെ ഇപ്പോൾ ഇത് കല്ല്യാണം കഴിഞ്ഞ് രണ്ട് മാസമായി കഴിഞ്ഞ് അതിൻ്റെ ഇത് അവധിയും തീരാറായി ഇത് മേടിച്ചുകൊണ്ട് പോവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എത്രയും പെട്ടന്നൊന്ന് തരാൻ എന്നാലും ദിവസമങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളൊന്ന് കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് കാണിക്കാനും അത് ആൽബം പോയിട്ട് ഇതും കൂടെ വീഡിയോയും കൂടെ ഇല്ലേ അതും അതും ശരിയാക്കിയോ അതെങ്കിലും അങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെഡേ നേരത്തെ തരാമെന്നും പറഞ്ഞല്ലേ നിങ്ങൾ മേടിച്ചത് നിങ്ങളെല്ലാം അത് അത്രത്തോളം ശരിയാക്കി നേരത്തെ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അത് ആവില്ല എന്തായാലും താമസിക്കുന്നത് ശരിയല്ലല്ലോ എന്നാൽ അങ്ങനെ ഒരാഴ്ച്ചയായത് ഒരാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതുവരെ അതുവരെ വെയിറ്റ് ചെയ്യുന്നതേ ഇനിയും ഒരു തടസ്സം പറയില്ലല്ലോ ഒരാഴ്ച്ചയെന്ന് പറഞ്ഞാൽ ഒരാഴ്ച്ചക്കകത്ത് തന്നെ ചെയ്യ് ഒരു ഒരാഴ്ച്ചയ്ക്കു തന്നെ കിട്ടിയിരിക്കണം ഇനിയൊരു മാറ്റം അതിൽ നമ്മൾ ഒരിക്കലും പാടില്ല അത് ഒരു തരില്ല ഓക്കെ ഓക്കെ ശരി ഓക്കെ